വയനാട് ജില്ലയിലെ പ്രധാന തൊഴിലിനെക്കുറിച്ച് പറയുകയാണെങ്കില് ആദ്യമിവിടെ അത്യാവശ്യമൊരു പകുതിയോളം ആൾക്കാര് കൃഷിയിലേർപ്പെടാറുണ്ട് തേയില അതേപോലെതന്നെ കാപ്പിക്കൃഷികള് ഇവിടെ കൂടുതലായിട്ട് കാണാറുണ്ട് കുരുമുളക് തേയില കാപ്പിയാണിവിടെ പ്രധാനമായിട്ടും കാണാറുള്ളത് ഇതിനെല്ലാം അതിൻറ്റേതായ ഇൻഡസ്ട്രീസും അവിടെ ജോലി ചെയ്യുന്നവരുമുണ്ട് പിന്നെ നോക്കുകയാണെങ്കില് അതേപോലെ തന്നെ വയനാട്ടില് ഹാൻഡ്ലൂം ആൻഡ് പവർലൂം ഇൻഡസ്ട്രി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് വ്യവസായം പൊതുവേ കുറവാണെങ്കിലും ഒരു ഒരു കാൽഭാഗമാൾക്കാര് വ്യവസായം ചേയ്ത് ജീവിക്കാറുണ്ട് പിന്നീട് നോക്കുകയാണെങ്കില് കൂലിപ്പണികള് തന്നെയാണ് മേയ്നായിട്ടിവിടെ എല്ലാവരും ചെയ്യാറുള്ളൊരു തൊഴിലെന്ന് പറയുന്നത് സ്വയം തൊഴിലുകള് പൊതുവേ കുറവാണ് സർക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമെടുക്കുകയാണെങ്കില് അത് പത്തിലൊരു ശതമാനമെന്ന് പറയേണ്ടിവരും കാരണം ഇവിടെ കൂടുതലായിട്ട് ഇത് വികസിച്ച് വരുന്നൊരു ജില്ലയായത് കൊണ്ടുതന്നെ വികസനം വളരെ കുറവുള്ളൊരു ജില്ലയായതുകൊണ്ട് തന്നെ പിന്നെ അതിലുപരി ഇവിടെ കൂടുതലായിട്ട് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാര് ജീവിക്കുന്നത് കൊണ്ടുതന്നെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയില് വളരെ പിന്നോട്ടാണ് നമ്മള് നില്ക്കുന്നത് ഇപ്പോള് എന്തെങ്കിലും ഒരു വിജയശതമാനം എടുക്കുകയാണെങ്കിൽത്തന്നെ വയനാട് ജില്ലയിൽ നിന്നുള്ള കുട്ടികളുടെ വിജയശതമാനം വളരെയധികം കുറവാണ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽക്കൂടി അതുപോലെതന്നെ പഠിക്കാൻ കഴിവില്ലാത്തവരും പിന്നെ പഠിക്കാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിടുന്നവരും ഒരുപാട് നമ്മുടെ ജില്ലയിൽ ഉള്ളതുകൊണ്ട് തന്നെ സർക്കാർ ജോലികള് വളരെയധികം കുറവാണ് അതിൻറ്റെ പ്രധാന കാരണം വിദ്യാഭ്യാസമില്ലായ്മ തന്നെയാണ് അതുപോലെതന്നെ വീട്ടുകാർക്ക് ഇപ്പോഴും ജോലിയുടെ പ്രാധാന്യം മനസ്സിലാകാത്തതിന്റെയൊരു പ്രശ്നവും ചില സ്ഥലങ്ങളില് കണ്ടുവരാറുണ്ട് തൊഴിലില്ലായ്മ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടുമുണ്ട് കാരണം എന്നും ചെയ്യാന് പറ്റുന്നൊരു തൊഴിലല്ല കൂലിപ്പണി അത് അവർക്ക് പണിയുണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല എന്നുള്ളൊരു രീതിയിലാണ് അത്തരത്തിലുള്ള പണികള് ഉണ്ടാവുക അതൊരിക്കലും പെർമെനൻറ്റായിട്ടുള്ളൊരു ജോലിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടുതന്നെ അത് വിദ്യാഭ്യാസത്തിൻറ്റെ കുറവ് തന്നെയാണെന്നാണെൻറ്റെ ഒരു അഭിപ്രായം വിദ്യാഭ്യാസം നല്ല രീതിയില് ഇവിടെ നൽകാൻ സാധിക്കുകയാണെങ്കില് അതായത് സര്ക്കാര് ഈ ജില്ലയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകി ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ രീതി കൂട്ടി വിദ്യാഭ്യാസം കൊടുക്കുന്ന നയം മാറ്റി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവർക്കായിട്ട് പ്രത്യേകമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷേ വയനാട് ജില്ലയുടെ വിദ്യാഭ്യാസ നിരക്കുയരുകയും സാക്ഷരതാ നിരക്കുയരുകയും അതോടൊപ്പം തന്നെ അക്ഷരങ്ങള് വായിക്കാനും എഴുതാനും അറിയുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയും ഡെവലപ്മെന്റുകളും വികസനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോള് ഇവിടെ തൊഴിലില്ലായ്മയിലൊരു പരിധിവരെ ക്ഷാമം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതോടെ തന്നെ സർക്കാർ ജോലികളിലേർപ്പെടുന്ന ആൾക്കാരുടെ എണ്ണവും കൂട്ടാൻ സാധിക്കും പിന്നെ കൃഷിയും വ്യവസായവും കൂലിപ്പണിയും ഒരിക്കലും ഞാനതിനെ താഴ്ത്തികെട്ടുന്നില്ല അത് ചെയ്യരുതെന്നല്ല അതുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ അത് ആ രീതിയില് നോക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ കൃഷി നല്ല രീതിയില് അത്യാവശ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം അവരതിൽനിന്നും കൃഷി ഒരിക്കലും ഒരു ദിവസം ഈ പെട്ടെന്ന് ഇല്ലാതാക്കിക്കളയണമെന്നല്ല ഞാൻ പറയുന്നത് കൃഷിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല പക്ഷേ തൊഴിലില്ലായ്മ കൂടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് കൂടുന്നുണ്ടെന്നതാണ് എൻ്റെ അഭിപ്രായം